വൈദ്യുതി ഇവിടെ ദിവസം മുഴുവനായിട്ടും ഓരോ ദിവസം മുഴുവനായിട്ടും നമുക്ക് വൈദ്യുതി ലഭിക്കാറുണ്ട് പിന്നെ വൈദ്യുതിയേപ്പറ്റി നമുക്കറിയാം വൈദ്യുതി ഇപ്പഴത്തേക്കാലത്ത് വൈദ്യുതി ഇല്ലെങ്കില് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എല്ലാ വൈദ്യുതിയുടെ ഉപയോഗത്തിൽ പെട്ടാണ് നമ്മളോരോ കാര്യങ്ങളും ഓരോന്നും മുന്നോട്ട് ചെയ്ത് ചെയ്ത് പോകുന്നത് എന്ത് വസ്തു നമ്മള് പ്രവർത്തിക്കുമ്പോഴും പ്രവർത്തിപ്പിക്കുമ്പോഴും ഇപ്പം നമുക്ക് വൈദ്യുതി ആവശ്യമാണ് വൈദ്യുതി മുടക്കം എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാന് പറ്റുന്ന ഒര് കാര്യമല്ല ഒര് വീട്ടില് അല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഇരിക്കുമ്പോൾ നമ്മള് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വൈദ്യുതിയുമായും ബന്ധപ്പെടുത്തിയിട്ട് ഉള്ളവയാണ് ആ വൈദ്യുതി മുടങ്ങുക എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും പ്രായോഗികമല്ല എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും അതുപോലെ വൈദ്യുതി മുടക്കം കാരണം വ്യത്യസ്ത കാലാവസ്ഥകളിൽ നമ്മുടെ ജീവിതത്തേ അത് നന്നായിട്ട് തന്നെ ബാധിക്കും ഒരു ദിവസം വൈദ്യുതി ഇല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളില് ക്ലേശളങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഒര് ദിവസം രാവിലെ തുടങ്ങുമ്പോൾ തന്നെ ഫോണാണെങ്കിലും ടീവിയാണെങ്കിലും കമ്പ്യൂട്ടറുകൾ അതുപോലെ നമ്മുടെ വീട്ടുപയോഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരുപാട് വസ്തുക്കൾ ഇതെല്ലാം വൈദ്യുതിയുമായി കേന്ദ്രീകരിച്ച് വൈദ്യുതിയിൽത്തന്നെ നമ്മൾ പ്രവർത്തിപ്പിക്കുന്നവയാണ് അത് വ്യത്യസ്ത കാലാവസ്ഥയിൽ ആയിരിക്കുമ്പോൾ മഴക്കാലത്താണെങ്കിൽ അല്ലേൽ കാല വർഷത്ത് ആണങ്കിൽ നമുക്കറിയയാം വൈദ്യുതി എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും ലഭ്യമാകുക കാരണം കാറ്റും ഇടിമിന്നലും മഴയൊക്കെ വന്ന് കഴിയുമ്പോൾ പോസ്റ്റുകളൊക്കെ ഇടിഞ്ഞ് വീഴാനും കാറ്റത്ത് എല്ലാം പോയി ലൈൻ കമ്പികളൊക്കെ പൊട്ടാനും ഉള്ള സാധ്യതകളക്കെ ഏറെയാണ് അപ്പം വൈദ്യുതി എന്ന് പറയുന്നത് നമുക്ക് ലഭ്യമാകുകയില്ല രാവിലെ മുതൽ ഓരോ വസ്തുക്കളേ പ്രവർത്തിപ്പിക്കുമ്പോഴും വൈദ്യുതി ഇല്ലാതെ വരുമ്പോൾ ആ ഒര് ദിവസത്തേ ഓരോ കാര്യങ്ങളും നമ്മള് ബുദ്ധിമുട്ടിലേക്ക് ഏർപ്പെടുകയാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അങ്ങനെ നമ്മള് വിവിധ രീതിയിൽ വൈദ്യുതി മുടക്കം നമ്മളുടെ ജീവിതത്തേ ബാധിക്കുന്നുണ്ട് ഇപ്പം അടുക്കളയിൽ ആണെങ്കിൽ പോലും നമുക്ക് ഇൻഡക്ഷൻ കുക്കറായി ഓവനായി ഇങ്ങനെ വിവിധ ഉപകരണങ്ങള് വിവിധ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇന്ന് ലഭ്യമാണ് അപ്പം ഇതെല്ലാം പ്രവർത്തിപ്പിക്കണമെങ്കിൽ വൈദ്യുതി ആവശ്യവുമാണ് അപ്പം വൈദ്യുതി ഇല്ലാതെ വന്ന് കഴിഞ്ഞാൽ ഇതിൻറ്റേക്കെ പ്രവർത്തനങ്ങള് നിലച്ച് പോകും അതുപോലെ നമ്മുടെ ആ ജീവിതം ആ ദിവസത്തേ ആ ഒര് ജീവിതം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നതും ആയിരിക്കും അങ്ങനെ വൈദ്യുതി മുടക്കം ജീവിതത്തിൽ നന്നായിട്ട് ബാധിക്കുന്ന ഒന്നാണ് അതുപോലെ ഫോൺ ഫോൺ റീചാർജ് ചെയ്യണമെങ്കിൽ നമ്മള് വൈദ്യുതി വേണം ഒര് ദിവസം ഇത്രയോ പ്രാശ്യം നമ്മള് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് അതിൽ നിന്ന് പെട്ടെന്ന് ചാർജ്ജ് തീർന്ന്പോയിക്കഴിയുമ്പോൾ വൈദ്യുതി ഇല്ലാതെ നമുക്കത് ഒന്നും ചാർജ്ജ് ചെയ്യാനോ ഒന്നും കഴിയുന്നതല്ല അതുകൊണ്ട് വൈദ്യുതി നമുക്കനിവാര്യമായ ഒന്നാണ് ഫോൺ മാത്രമല്ല ടീവിയാണങ്കിലും അതുപോലെ തേപ്പ് പെട്ടി ഇങ്ങനെ ഉള്ള പല പല വസ്തുക്കള് ലൈറ്റ് ഏറ്റവും പ്രധാനപ്പട്ട നമുക്ക് വേണ്ടതാണ് ലൈറ്റ് ലൈറ്റ് ഉപയോഗിച്ച് നമുക്കൊരുപാട് കാര്യങ്ങള് ചെയ്യേണ്ടതുണ്ട് വെളിച്ചമില്ലാത്തൊരു അത് ബൾബോഡ് കൂടിയ വിെളിച്ചം ഇല്ലാന്ന് പറയുമ്പോൾ അത് ഒരുപാട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും അതുപോലെ ചൂട് കാലാവസ്ഥകളിലൊക്കെ ഉഷ്ണ കാലാവസ്ഥയിലാണെങ്കിൽ നമുക്കേറ്റവും കൂട്തലായി വീട്കളിലും ഓഫീസുകളിലാണെങ്കിലും എവിടെയും വേണ്ടത് ഫാനാണ് ഫാൻ നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടേൽ നമുക്കറിയാം നല്ല വൈദ്യുതി നല്ല വോൾട്ടേജോട് കൂടിയ നല്ല വൈദ്യുതി വേണം അപ്പം ഫാനൊക്കെ വർക്ക് ചെയ്യാതെ വന്ന് കഴിഞ്ഞാലത് മനുഷ്യ ജീവിതത്തേ ഒരുപാട് ബുദ്ധിമുട്ടിലേക്കേർപ്പെട്ത്തും അത് ആ ഒരു ഇത് നമ്മൾ ഉണ്ടാക്കി പഠിച്ചിട്ട് പിന്നീട് ഇല്ലാതെ വന്ന് കഴിയുമ്പം അത് നമ്മളേ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് ഏർപ്പെടുത്തും അതുപോലെ ഓഫീസുകൾളൊക്കെ ആണെങ്കിലും ചൂട് കൂടിയ പ്രദേശങ്ങളിലൊക്കെ ഏ സി ഉപയോഗിക്കാറുണ്ട് അപ്പം ഈ എസിയുടെ ഉപയോഗം നിലച്ച് പോയാലും വൈദ്യുതി ഇല്ലാതെ വന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗം നിലച്ച് പോകും അപ്പം ചൂടോട്കൂടി നമ്മൾ ഓഫീസിൽ ഇരിക്കുക അത് മനുഷ്യ ജീവിതത്തെ കൂടുതലേറെ ബുദ്ധിമുട്ടിലേക്ക് എറിയപ്പെടുകയും ചെയ്യും അപ്പം ഇങ്ങനെ വൈദ്യുതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തില് എപ്പോഴും അനിവാര്യമായ ഒന്നാണ് ഓരോ കാലാവസ്ഥയിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും ചില കാലാവസ്ഥകളിൽ ചില കാലങ്ങളിൽ വൈദ്യുതി ആവശ്യത്തിനത് ലഭിക്കും അതേ സമയം പവർക്കട്ട് പോലെ വന്ന് കഴിഞ്ഞാൽ അത് മനുഷ്യ ജീവിതം അത് കൂടുതല് ഉഷ്ണ കാലാവസ്ഥകളിലാണ് വന്ന് കഴിയുമ്പം അത് മനുഷ്യരിലേക്ക് കൂടുതലായിട്ടുള്ള മനുഷ്യ ജീവിതത്തേ ബാധിക്കും